ഹലോ ഇത് ഊബറുടെ ഓഫീസല്ലേ ആ ഞാൻ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഒരു ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒൻപതരക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻന്ന് ഒരു ട്രെയിനുണ്ടായിരുന്നു അതെ അതെ ഞാൻ ഒരു ഞാൻ മാത്രമേയുണ്ടായിരുന്നുള്ളു ഞാൻ ഒരു ഒൻപത് മണിക്കന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എത്തിയിട്ടുള്ളത് നിങ്ങടെ വണ്ടി എത്തിയത് ഒൻപതെ കാലിനാണ് പിന്നെ അവരെ റെയിൽവേ സ്റ്റേഷൻല് ഒൻപത് അൻപതായപ്പോഴാണ് എത്തിച്ചത് എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിനായി ബന്ധപെട്ടിട്ടായിരുന്നു ഞാൻ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോവാൻ നിന്നത് അതെ അതെ പിന്നുള്ള ട്രെയിനൊന്നു എനിക്ക് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരോന്നും ലഭിച്ചില്ല ഞാൻ അവരോട് അപ്പത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്താൻ വൈകി പോയത് അവരിതാ എത്തീ എത്തീന്ന് പറഞ്ഞത് കൊണ്ട് ഞാനവിടെ പിന്നേം വെയിറ്റ് ചെയ്തത് പതിനഞ്ച് മിനിറ്റോളം വൈകുമെന്ന് ഒരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ വേറെ വണ്ടിയെടുത്ത് പോവായിരുന്നു എന്നാ വൈകുന്നൊള്ളൊരു കാര്യം ഒരു സൂചന നൽകുകയോ എന്നാൽ അത് ചോദിച്ചപ്പം മര്യാദയ്ക്കുള്ള സംസാരോം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളതങ്ങോട്ട് ചോദിച്ചപ്പോൾ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയായിരുന്നു അവിടുന്ന് പെരുമാറിയത് ഞാനെന്തായാലും ഇതിന് പൈസ അപ്പോഴ്ത്തന്നെ കൊടുത്തിട്ടുള്ളു പക്ഷേ എനിക്കത് റീഫണ്ടായിട്ട് ഉടനെ കിട്ടണം ഞാൻ ഇത് വളരെ മോശം റേറ്റിങ്ങിടാൻ പോവാണ് അപ്പുറത്ത്ന്നൊരു നടപടി ഉണ്ടാവുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ജോലിയുടെ കാര്യമാണ് നിങ്ങളത് എന്ത് എങ്ങനേച്ചാൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം ഞാനൊരു സ്ഥിരം ഇങ്ങനെ ഊബറ്ന്നെയാണ് ഉപയോഗിക്കാറ് എന്നിട്ട് എനിക്കിപ്പിങ്ങനെ വന്നത് വളരെ വിഷമമുണ്ടാക്കി